പക്ഷികൾക്കായി ധാന്യങ്ങളും വെള്ളവും വയ്ക്കാറുണ്ട് വെള്ളം ഒരു മരത്തില് ചട്ടിയില് തൂക്കിയിടാറുണ്ട് ധാന്യങ്ങള് വീടിൻ്റെ മുറ്റത്ത് പക്ഷികള് വന്നാൽ മാത്രം ധാന്യങ്ങള് കൊടുക്കും വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലേക്ക് പക്ഷികളെ ആഗ്രഹിക്കുന്നതിന് പക്ഷേ പൂക്കളുടെ കളറുകൾ അതിലുള്ള തേനികളും തന്നെയാണ് പക്ഷികളെ കൂടുതലായി ആഗ്രഹിക്കുന്നത് നിരവധി വ്യത്യസ്തതരങ്ങളായ പൂക്കൾ വീടുകളിലുള്ളത് കൊണ്ട് തന്നെ ഒരു നിരവധി പക്ഷികളും വീടുകളിലേക്ക് വരാറുമുണ്ട്